ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മിക്ക ആളുകളുടെയും ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൊബൈൽ ഫോണുകളെന്നു പറയുന്നത് അതില്ത്തന്നെ മൊബൈൽ ഫോൺ കോൾ ചെയ്യുന്നതിനും കാൽകുലേഷനും മാത്രമായിട്ടല്ല ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഇന്നു ലഭ്യമാണ് വിവിധ പ്രോഗ്രാമിംഗ് ഭാഷകളും ചട്ടക്കൂടുകളും ഉപയോഗിച്ചാണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് നിർമ്മിച്ചിട്ടുള്ളത് അവ ഗൂഗിൾ പ്ലേ പോലുള്ള ആപ്പ് സ്റ്റോറുകളിൽ നിന്നു നമുക്കു വളരെ എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നവയുമാണ് പേ ടി എം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ആപ്ലിക്കേഷനുകൾ നമുക്ക് ബാങ്കിങ് മേഖലയെ വളരെയധികം സഹായിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പണമിടപാടുകൾ നടത്തുവാനും നമ്മളെ ഇതു സഹായിക്കുന്നു ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ ഷോപ്സി തുടങ്ങിയ ഷോപ്പിംഗ് ആപ്പുകളും ഇന്ന് അവൈലബിളാണ് അത്തരത്തിലുള്ള ഷോപ്പിംഗ് ആപ്പുകൾ നമുക്കു സമയ ലാഭം വളരെയധികം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മളെ സമയം സമയത്തെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു വാർത്തകളും മറ്റും അറിയുന്നതിനായി പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും ഇന്ന് അവെയ്ലബിളായിട്ടുണ്ട് ഗെയിം കളിക്കാനായിട്ടും വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോസ് എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കും പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും ലഭ്യമാണ് ഇവയെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകളും പെയ്ഡായിട്ടുള്ള ആപ്ലിക്കേഷൻസുകളുമുണ്ട് ഇവ ഗുണം ചെയ്യുന്നു എന്നതുപലെ തന്നെ ദോഷവും പ്രദാനം ചെയ്യുന്നുണ്ട് എല്ലാം ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നതിനോടൊപ്പം തന്നെ ഇവയുടെ ഉപയോഗം വളരെയധികം നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നുണ്ട് വളരെയധികം ജീവിതത്തോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം മരണം വരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് മുതിർന്നവർ തൊട്ട് ചെറിയ കുട്ടികളടക്കം പലതരത്തിലുള്ള ഗെയിമുകളിൽ അഡിക്റ്റായിക്കൊണ്ടു സ്വന്തം ജീവിതം തന്നെ പണയംവച്ചു നശിപ്പിച്ചു കളയുന്നവരുമുണ്ട് ഇത്തരത്തിൽ ടൈം സേവ് ചെയ്യാനും വർക്ക് എളുപ്പമാക്കാനും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇല്ലാതെ ജീവിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പഠനത്തിനും മറ്റു സാങ്കേതിക പരമായിട്ടുള്ള മുന്നേറ്റത്തിനും വളരെയധികം നല്ല പങ്കു വഹിക്കുന്നുണ്ട് പഠന സംവിധാനങ്ങളിലാണെങ്കിൽ യൂ ട്യൂബ് ഗൂഗിൾ ക്രോം മറ്റുവിധ മറ്റു പലവിധ സെർച്ച് എഞ്ചിനുകളും പഠനോപാധിയായി ഉപയോഗിക്കുന്നവർ ഒരുപാടാണ് പഠനത്തിനെന്നതുപോലെ തന്നെ മറ്റു പല മറ്റു പല അറിവുകളും ലഭ്യമാക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷന്റെ കടന്നു വരവോടെ ബാങ്കിങ് സംവിധാനങ്ങളിൽ വളരെയധികം മുന്നോട്ട് മുന്നോട്ടുള്ള ഒരു വളരെയധികം മുന്നോട്ടുള്ള ഒരു കാല്വെപ്പു തന്നെയാണ് ഈ തലമുറ എടുത്തുകഴിഞ്ഞിരിക്കുന്നത്